ആ ചേട്ടാ നമസ്ക്കാരം ആ ആഹ് ആഹ് അഹ് ആഹ് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് അഹ് ആ ആ അതിലോ

ആഹ് ഓക്കെ ചേട്ടാ നമുക്ക് ഇപ്പോൾ അന്ന് പറഞ്ഞത് വീട് മാത്രം മതി എന്നാണ് അപ്പോൾ അല്ല വീടും സ്ഥലം കൂടി ഉള്ളത് പ്രോപ്പർട്ടി ആണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അതിലിപ്പോൾ ഏകദേശം എഴുപത് സെന്റ് സ്ഥലത്തില് ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ആഹ് രണ്ട് നില ആർ സീ വീടെ തന്നെയാണത് ആ അതില് വന്നിട്ട് ഇപ്പോൾ താഴത്തെ നിലയില് ഒരു ഹോള് സിറ്റ്ഔട്ട് ഹോള് രണ്ട് ബെഡ്റൂമ് ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ പിന്നെ ഡൈനിങ് ഹോള് പിന്നെ ചെറിയ ഒരു പൂജാ മുറി അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് മുകളില് അതുപോലെ മൂന്ന് റൂമും മൂന്ന് ആ മുകളില് മൂന്ന് റൂമും ചെറിയ ഒരു വരാന്ത പോലെ ഉണ്ട് പിന്നെ ആ രണ്ട് എല്ലാ റൂമും മറ്റേ ബെഡ്റൂമൊക്കെ അറ്റാച്ചിട് ബാത്ത്റൂമാണ് പിന്നെ ഒരു കോമൺ ബാത്ത്റൂമും ഉണ്ട് പിന്നെ മുകളിലേക്ക് കുറച്ച് ടെറസിൻ്റെ ഇതും വരുന്നുണ്ട് രണ്ടാമത്തെ നിലേൻ്റെ മുകളിലാണ് ടാങ്കും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവിടെ ടെറസ് കാര്യങ്ങള് കുറച്ച് തുണി അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് നോക്കാണെന്ന് പറയുമ്പോൾ അതില് ഇരുപത് സെന്റ് സ്ഥലത്തില് ബാക്കി വന്നിട്ട് കുറച്ച് മരങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് ടൗണിൽ നിന്ന് കുറച്ച് പ്ലാവുണ്ട് മാവ് പിന്നെ കുറച്ച് തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പച്ചക്കറി ആഹ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കില് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്

ആ അതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് പ്രശ്നമൊന്നുമില്ല അല്ല ഇപ്പോൾ ഇൻ്റർലോക്കൊന്നു അല്ല ജസ്റ്റ് പ്ലെയിനായിട്ടെന്നെ സ്ഥലം തന്നെയാണ് നമ്മുടെ വീട് മാതിരി ബാക്കിയൊക്കെ മണ്ണ് അതേ പോലെ തന്നെയാണ് പിന്നെ ആ കോമ്പോണ്ട് വാളൊക്കെ ഉണ്ട് മ് പിന്നെ ടൗണിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്ററിൻ്റെ അടുത്താണ് നമ്മുടെ ഈ സ്ഥലം വരുന്നത് പ്രോപ്പർട്ടി മെയിൻ റോഡിൽ നിന്ന് നാല് കിലോമീറ്ററിൻ്റെ അടുത്താണ് വരുന്നത് ആ ഉള്ളിലേക്ക് ആ അത്ര ഉള്ളിലേക്കല്ല എന്നാലും നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് എട്ട് കിലോമീറ്ററേ ഉള്ളു അടുത്ത ടൗണ് എട്ട് കിലോമീറ്ററില് ടൗണ് വരുന്നുണ്ട് പിന്നേ മെയിൻ റോട്ടിൽ നിന്ന് ഹൈവേ അല്ല എന്നാലും നമ്മളെ ഈ മെയിൻ ശോ എൻഎച്ച്ന്നല്ലാണ്ടെ നമ്മുടെ എസ്സെച്ച് വരുവല്ലൊ സ്റ്റേറ്റ് ഹൈവേ സ്റ്റേറ്റ് ഹൈവെയിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററാണ് നമ്മുടെ ഇതിലേക്ക് വരുന്നത് പ്രോപ്പർറ്റിയിലേക്ക് നിയർ ബയ് ഹോസ്പിറ്റല് വരുന്നത് ഏകദേശം ഒരൂ ആറ് കിലോമീറ്ററിലൊരൂ ഹോസ്പിറ്റല് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റൽ തന്നെയാണത് ആ പിന്നേ സ്കൂള് വരണത് ടൗണിൽ തന്നെയാണ് സ്കൂള് വരുന്നത് ടൗണില് കുറെ ഒരൂ നാലഞ്ച് സ്കൂളുകളുണ്ട്പിന്നേ ചെറിയ ഗവൺമെൻറ് സ്കൂള് അടുത്ത് തന്നെ ഉണ്ട് രണ്ട് മൂന്നെണ്ണമുണ്ട് വലിയ പ്രൈവറ്റ് സ്കൂള് നോക്കണമെന്ന് പറയുമ്പോൾ ടൗണ് ഏരിയയിൽ തന്നെ പോകേണ്ടി വരും പിന്നെ കിണറുണ്ട് നിങ്ങൾക്ക് ബോർവെൽഡ് ബോർവെൽ അടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത്യാവശ്യം അതിൻ്റെ ആവശ്യം വരില്ല അല്ലാണ്ട് കിണറിൽ നിന്ന് തന്നെ നല്ല വെള്ളമാണ് ഏകദേശം ഒരൂ പത്തടി പന്ത്രണ്ട് അടിക്ക് താഴ്ചയുളള കിണറ് തന്നെയാണത് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് അടുത്ത് വീടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവിടെ താമസത്തിന് ആൾക്കാര് ഉണ്ട് നല്ല ഫ്രണ്ട്ലീ ആൾക്കാരാണ് നിങ്ങൾക്ക് പോയി അവിടെ പോയി അന്വേഷിക്കാം സ്ഥലത്തെ പറ്റി വീടും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്താണ് പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ആണ് റൈറ്റ് ഇപ്പോൾ വന്നിട്ട് ആ വീടും സ്ഥലവും കൂടെ നമ്മള് ഒര് ക അവര് പറഞ്ഞ എമൗണ്ട് വന്നിട്ട് നാൽപ്പത്തിയെട്ട് ലക്ഷമാണ് പറയണത് നമുക്കൊരു നാല്പത്തി രണ്ടിനോ നാപ്പത്തി മൂന്നിനോ ഒക്കെയായിട്ട് റെഡിയാക്കാൻ പറ്റും

ആ നമ്മക്കൊരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്നിനൊക്കെ എന്തായാലും റെഡിയക്കാൻ പറ്റും അതില് എന്താന്ന് വെച്ചെങ്കിൽ നോക്കാം ആ ഇതിപ്പോൾ പണി കഴിഞ്ഞിട്ടൊരു രണ്ടോ മൂന്ന് കൊല്ലത്തിനടുത്തേ ആയിട്ടുള്ളൂ കാരണം അവര് അധികം താമസിച്ചിട്ടൊന്നുമില്ല ഫർണിഷിട് ആയിരുന്നു പക്ഷെ ഫർണിച്ചർ ഒക്കെ ഇപ്പോൾ ഒഴിവാക്കി അതിൽ നിന്ന് ഓ ഫർണിച്ചർ ഫുൾ ഫർണിഷ്ഡ് ആയിരുന്നു അത് അല്ല ഇപ്പോൾ എല്ലാം ഒഴിവാക്കി ഇപ്പോൾ ഡൈനിങ്ങ് ടേബിൾ എന്തോ ഉണ്ടെന്നു തോന്നുന്നു ഡൈനിങ്ങ് ടേബിള് ഒരു സോഫാ സെറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളു എന്ന് തോന്നണുണ്ട് ആ നമുക്ക് പറ്റിയാൽ ആ ചേട്ടൻ എപ്പഴാണ് വരണതെന്ന് വെച്ചാൽ നമുക്ക് സൗകര്യം പോലെ ഒന്ന് പോയി നോക്കാം ആ ആ എന്നാൽ പിന്നെ എൻ്റെ സമയം അനുസരിച്ച് ഒന്ന് വന്നാൽ മതി ഞാൻ ഓഫീസിൽ തന്നെ കാണും ഓക്കെ സാർ താങ്ക്യൂ